പതിനൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പൂജ്യം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട്